പൊതുവേ ഞങ്ങളെ കോഴിക്കളെ പശുക്കളെ ഒന്നും വളർത്തുന്നില്ല പണ്ടൊക്കെ നല്ലവണ്ണം വളർത്തിയിരുന്നു ഇപ്പോൾ പിന്നെ വയസ്സും പ്രായവും ഒക്കെ ആയതുകൊണ്ട് അതിനൊന്നും കഴിയില്ല പണ്ട് കോഴി വളർത്തൽ പശു വളർത്തിയിരുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വളർത്തിയിരുന്നു അങ്ങനെയാവുമ്പം നമുക്ക് അതിന്മേൽനിന്ന് പൈസയുണ്ടാക്കാം കോയിക്കളുടെ മുട്ട എല്ലാം മുട്ടയും നമുക്കൊക്കെ കിട്ടും ഇതായാൽ നമുക്ക് പശുക്കൾ ആണെങ്കിൽ നമുക്ക് പാൽ കിട്ടും സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുക പൈസ ഉണ്ടാക്കാം നമുക്കും നല്ല പൈസ അധികം ഉണ്ടാക്കാൻ നല്ല പാലും കുടിക്കാൻ പറ്റും അപ്പോൾ അതൊന്നും ഇല്ലാത്ത കടയിൽനിന്ന് പാൽ വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് പണ്ട് പിന്നെ പശുക്കളൊക്കെ വളർത്തുമ്പോൾ കോഴിക്കളൊക്കെ വളർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ കാഷ്ടം കൃഷിക്കൊക്കെ ഇട്ടുകൊടുക്കാം അതും നല്ല വളമായതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കൃഷിയില്ല മൃഗവളർത്തൽ ഇല്ല പണ്ടൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് സമയമാവുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു